ഇപ്പോൾ എപ്പോഴും ഏറ്റവും പുതിയ കായിക വാർത്തകളൊക്കെ കൂടുതലായിട്ടും നമ്മളറിയുന്നത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ ശ്രീലങ്ക ഒരു കളി ഉണ്ടെന്ന് പറഞ്ഞില്ലേ അത് നമ്മൾ കൂടുതലായിട്ട് അറിഞ്ഞത് ഈ സോഷ്യൽ മീഡിയ വഴിയും അല്ലെങ്കിൽ വാർത്തകളിലൂടെയൊക്കെയുമാണ് ഇന്ത്യയും ശ്രീലങ്ക ക്രിക്കറ്റ് കളി ഉണ്ട് എന്ന് ഒക്കെ അറിയുന്നത് അല്ലെങ്കിൽ നമ്മളുടെ മൊബൈലിലേക്കൊക്കെ ആണെങ്കിലും മെസേജ് കാര്യങ്ങളൊക്കെ വരും ഇപ്പോൾ ഇന്ന് ഇന്ത്യ ശ്രീലങ്ക കളിയുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും വാച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കളിയും കാര്യങ്ങളൊക്കെ അറിയുകയുള്ളൂ അതു പോലെ തന്നെയാണ് ഇപ്പോൾ എല്ലാ കളികളും ഇപ്പോൾ നമ്മൾ ഏത് കളിയാണെങ്കിലും നമ്മളെങ്ങനെയാണ് അറിയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഐ എസ് എൽ നടക്കുന്നുണ്ട് ഐ എസ് എൽ ഇരുപത്തി രണ്ടാം തീയ്യതി എങ്ങാണ്ടോ ആണ് സ്റ്റാർട്ടാവുന്നത് അപ്പോൾ ഐ എസ് എൽ നമ്മൾ കൂടുതലായിട്ട് അറിയുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ വാർത്തകളിലൂടെയൊക്കെയാണ് ഈ പരസ്യം കൊടുക്കുക അപ്പം അവർ ഈ പരസ്യത്തിലൂടെ പറയും ഇന്ന ഇരുപത്തി രണ്ടാം തിയ്യതി ഐ എസ് എൽ സ്റ്റാർട്ട് ആകുകയാണ് അത് കൊച്ചിയിൽ വെച്ചിട്ടാണ് കളി എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പം നമ്മൾ കൂടുതലായിട്ടും ഇ സോഷ്യൽ മീഡിയ വഴിയാണ് ഇങ്ങനത്തെ വാർത്തകളും കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ടും അറിയുന്നത് അപ്പോൾ സോഷ്യൽ മു മേ മീഡിയ പിന്തുടരുന്നതിനനുസരിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും